ഈ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ ഇന്ത്യൻ സാമ്പത്തികവളർച്ച വളരെ പുരോഗമനം കൈവരിച്ചിട്ടുണ്ട് അതില് സഹായിച്ച പല ഘടകങ്ങളുണ്ട് പല വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട് പല മേഖലകളും ഉണ്ട് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പുരോഗതിക്ക് വഴി വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട് അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളും മേഖലകളും എന്ന് പറയുന്നത് വ്യാപാരവും ഹോട്ടലുകളും ടൂറിസവും ഗതാഗതവും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും അതേപോലെ തന്നെ കൃഷിയും മത്സ്യബന്ധനവും വനവും എല്ലാം ആണ് അതിന് സഹായകരമായിരുന്നിട്ടുള്ളത് ഇതില് വളർച്ചയും പുരോഗതി പുരോഗമനവും നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഒരുപാട് മുന്നോട്ട് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽപരമായി ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതേപോലെ തന്നെ ഗൂഗിൾ പേയും എല്ലാം ഉപയോഗിക്കുന്ന മൂലം നമുക്ക് നമ്മുടെ ജീവിതശൈലിയെ ഒരുപാട് എളുപ്പത്തിൽ കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന മൂലം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഒന്നുകൂടി മുന്നോട്ടു നയിക്കുകയും അതേപോലെ അതിൻ്റെ പുരോഗമനത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്